എൻ്റെ ഒഴിവു സമയങ്ങളിൽ കൂടുതലും ഞാൻ പാട്ട് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാനും പിന്നെ എനിക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് സംസാരിച്ചിരിക്കാനുമാണ് എൻ്റെ സമയം ചിലവഴിക്കാറുള്ളത് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അതുകൊണ്ടു തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായി ചെയ്യാറുണ്ട് പിന്നെ വീടിനടുത്താണ് കസിൻസിൻ്റെക്കെ വീടും അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ടൊക്കെ പോയി അവരു ആയിട്ടൊക്കെ ഒരുപാട് നേരം സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കാറുണ്ട് പിന്നെ വീടിൻ്റടുത്ത് പുഴയൊക്കെ ഉള്ളത് കൊണ്ട് ചില സമയം അവിടെയൊക്കെ പോയി ചുമ്മാതെ ഇങ്ങനെ ഇരിക്കും അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഒഴിവ് സമയങ്ങളിൽ ചെയ്യാനായിട്ട് പിന്നെ പാട്ട് കേൾക്കാനുള്ളത് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടു തന്നെ എപ്പോൾ ഫ്രീ കിട്ടിയാലും ഞാൻ പാട്ട് കേൾക്കാറുണ്ട് എനിക്ക് ഒഴിവ് ഉള്ള സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം